അതെ അതെ അപ്പോൾ ഏത് വണ്ടിയാണ് നിങ്ങൾ നോക്കാൻ ഉദ്ദേശിച്ചത് സ്കൂട്ടിയ ആണോ ബൈക്ക് ആണോ സ്കൂട്ടി അല്ലേ കളറ് ഏത് കളറാണ് വൈറ്റ് ആണല്ലേ ഏത് മോഡലാണ്

മൈലേജ് ഏകദേശം നാൽപ്പതിൻ്റെ അടുത്ത് ഉണ്ടാവും നിങ്ങൾ എത്ര റേറ്റിൻ്റെ ഇടയിലാണ് ഉദ്ദേശിക്കുന്നത്

ആ റേറ്റിൽ ഉള്ളതാണല്ലേ ആ ആ അപ്പം ഫസ്റ്റ് തന്നെ എടുക്കാനായിരിക്കും അല്ലേ ആ ഇപ്പോൾ കുറേ ഓഫറല്ലാം ഉണ്ട് വിഷുവിൻ്റെ ഓണത്തിൻ്റെ ഒക്കെ ആ അ ഇൻസ്റ്റാൾമെൻറ് വേണമെങ്കിൽ അങ്ങനെ ആക്കാം അല്ലെങ്കിൽ ലോൺ എല്ലാമുണ്ട് അല്ല മൊത്തത്തിൽ അടക്കുന്നതാണെങ്കിൽ അങ്ങനെ ആക്കാം എങ്ങനെ ആ നിങ്ങളെ ഓരോ മാസം എങ്ങനെയാണ് നിങ്ങൾ അടയ്ക്കാൻ പറ്റുന്നത് ആ രീതിയിൽ നോക്കിയിട്ട് ചെയ്തു തരാം ഇ ടി വി എസ് എക്സ ലിന് ഇപ്പം ഓഫറിൽ ഒരു തൊണ്ണൂറിന് എടുക്കാൻ പറ്റും

നിങ്ങൾ ഇപ്പം അതിൻ്റെ കൂടുതൽ അറിയാൻ വേണ്ടി ഷോറൂമിലേക്ക് വരേണ്ടി വരും അപ്പോൾ നിങ്ങൾ എന്നാൽ ഷോറൂമ്മിൽ വന്നു അന്വേഷിച്ചോ മൈലേജ് നാൽപ്പതിൻ്റെ അടുത്ത് ഇന്ന് തന്നെ വന്നോ ഇപ്പോൾ ഓഫറിൻ്റെ സമയം ആയതുകൊണ്ട് നല്ല വിലക്കുറവുണ്ടാവും അപ്പം ഷോറൂമിലേക്ക് വരുന്നതായിരിക്കും നല്ലത് നിങ്ങൾ ഷോറൂമിലേക്ക് വരുന്നതായിരിക്കും നല്ലത് ഷോറൂമ ഇവിടെ കോഴിക്കോട് ഭാഗത്താണ് ആ റെയിൽവേ സ്റ്റേഷൻ അടുത്തായിട്ട് തന്നെ അപ്പം ശരി നിങ്ങൾ ഷോറൂമിലേക്ക് വാ കേട്ടോ